അതിപുരാതനമായ ഒരു ക്ഷേത്ര നഗരമാണ് തിരുവനന്തപുരം അപ്പോൾ പ്രധാനപ്പെട്ട പ്രശസ്തമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പതിമൂന്ന് എണ്ണം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഇപ്പോഴുള്ള തിരുവനന്തപുരം അന്ന് അനന്തപുരമായിരുന്നു അപ്പോൾ ഇപ്പോഴുള്ള തിരുവനന്തപുരത്തിലെ തിരൂ എന്നാൽ ശ്രീ എന്നാണ് അർത്ഥം അപ്പോൾ ഈ ശ്രീ അനന്തപുരമാണ് ഇപ്പോൾ തിരുവനന്തപുരമായിട്ട് മാറിയത് പിന്നെ പറയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന പേരിനെ ട്രിവാൻഡ്രം എന്നും മാറ്റി പറയാമെന്നുള്ള ഒരു പ്രഖ്യാപി എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ ഫോറിനേഴ്സൊക്കെ ട്രിവാൻഡ്രം എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് ചരിത്ര വ്യക്തികൾ ഒരുപാട് മഹത് വ്യക്തികൾ തിരുവനന്തപുരത്ത് ആകെ നമ്മുടെ പ്രദേശത്ത് ഉണ്ട് അപ്പം ഏറ്റവും അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിയാണ് ശ്രീനാരായണഗുരു അദ്ദേഹം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു തത്വചിന്തകനും ഹൈന്ദവ സന്യാസിയും അതുപോലെ കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണഗുരു